കലാ വ്യവസ്ഥയും കലാകാരന്മാരെയും ഇപ്പോൾ സാങ്കേതികവിദ്യ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നമുക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്താന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പത്തെ ഓൺലൈന് അല്ലെങ്കിൽ സമൂഹമാധ്യമങ്ങൾ വഴി അവരുടെ കലകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്താ പറയുക വേറൊരാൾക്ക് കാണിച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ വേറൊരു വേറൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒക്കെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്ക് പുതിയത് പഠിക്കാൻ ആണെങ്കിലും നല്ല രീതിക്ക് ഒരു അവസരങ്ങളും നൽകുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത് കുറെ ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് പോയിട്ട് അവിടെ പോയി ചെയ്യണന്നോ അതൊന്നുല്ല ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ നമ്മുടെ ഇഷ്ടം ഉള്ള സമയത്ത് നമുക്ക് ഏത് കല ഇപ്പോൾ എന്തായാലും അത് അവർക്ക് പഠിക്കാനും കാര്യങ്ങളോക്കെ സുഖമായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കലാകാരങ്ങളൊക്കെ നമുക്ക് സ്വന്തായിട്ട് വളർത്തിയെടുക്കാനും അതിൽകൂടുതൽ പ്രാവീണ്യം നേടാനും നാലാളെ ഇപ്പോൾ ഇങ്ങനെ പണ്ട്ന്ന് പറയുമ്പോൾ വേറൊരാള് അറിഞ്ഞു വരണം പറഞ്ഞാൽ ഒരാളുടെ വായിന്നന്നേ കേട്ട് ഇപ്പോൾ ഞാൻ കേട്ട് കഴിഞ്ഞ് ഞാൻ വേറൊരാളോട് പോയി പറഞ്ഞു അങ്ങനെയൊക്കെയാണ് വേറെ ആൾക്കാർ അറിയുള്ളൂ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏതെങ്കിലോരു പ്ലാറ്റ്ഫോമിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക നല്ല രീതിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് തന്നെ ഫേമസ് ആകാൻ പറ്റും